പൂജ്യം എട്ട് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് ഏപ്രിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് പൂജ്യം മൂന്ന് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് പൂജ്യം നാല് ഫെബ്രുവരി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് പൂജ്യം അഞ്ച് ഓഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല്